ഞങ്ങൾ ഇവിടെ മീൻ കറിയൊക്ക വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ എല്ലാം വെച്ചണ്ട് എല്ലാ സാധനങ്ങളും പുറമെ നിന്ന് സാധനങ്ങൾ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് വാങ്ങുകയൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ള മാങ്ങ പുളി പിന്നെ ജാതിക്കൻ്റെ പൊടി പിന്നെ ഈ ഗരമസാലപ്പൊടി ഏലക്കായ അതൊക്കെ ചേർത്തിട്ട് പുളിയും പാർന്ന് അങ്ങനെ വച്ചാൽ നല്ല ടെയ്സ്റ്റ് ആണെന്ന് പറയും എല്ലാവരും പൊർമത്ത് ഇതൊന്നും ഇപ്പോൾ നമുക്ക് ശരിക്ക് നല്ലതല്ലല്ലോ മായമുള്ള സാധനങ്ങളൊന്നും ചേർക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ഒരു ഇതല്ലാലോ പിന്നെ ഇങ്ങനെ അച്ചാറിടും അച്ചാറും ഇതേ പോലെ തന്നെ നല്ല വെളുത്തുള്ളിയും പിന്നെ മാങ്ങ ഇതൊക്കെ നല്ലോണം വാട്ടിയിട്ട് പിന്നെ അച്ചാർ പൊടിയിൽ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി വച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ വഴറ്റി വച്ചിട്ട് പിന്നെ അത് ചട്ടിയിലിട്ട് കുറഞ്ഞൊന്ന് വാട്ടിയിട്ട് എണ്ണയിൽ എണ്ണയിൽ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ പാടെ വാട്ടിയിട്ട് അത് നല്ലോണം ഇളക്കി കുറഞ്ഞ വേവിൽ ഒന്നണ്ട് വാട്ടി അമർത്തി വച്ചിട്ട് അടപ്പ് കൊണ്ട് അമർത്തി വച്ച് നല്ലോണം ഒന്ന് വേവിച്ച് പിന്നെ നല്ലോണം സുർക്ക കറിവേപ്പിൻ്റെ ഇലയും സുർക്കയും ഒക്കെ തണുത്തതിൻ്റെ ശേഷം സുർക്ക എടുത്ത് വാങ്ങി വട്ടത്തിന്ന് വാങ്ങി വച്ചതിൻ്റെ ശേഷം സുർക്ക ഒക്കെ ഒഴിച്ചിട്ട് നല്ലോണം തണുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു അഞ്ചാറ് അഞ്ചാറ് ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളു പെട്ടന്നൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പറ്റുന്ന കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മായമൊന്നും നമ്മൾ വീട്ടിൽ പിന്നെ കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കിണേക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നത് തന്നെയാണ്